ഹലോ ഹലോ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ അല്ലേ ആ എനിക്ക് എൽ കെ ജിയിലേക്കും സെക്കന്റ് സ്റ്റാൻഡേർഡിലേക്കും എൻ്റെ ഒരു കുട്ടീനെ ചേർക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ആ അത് ആ എൽ കെ ജിയിൽ പഠിക്കുന്നത് ഗേൾ ആണ് സെക്കന്റ് സ്റ്റാൻഡേർഡിൽ ബോയ് ആണ് ആ അതെ തേർട്ടി ഫൈവ് ആണോ ആ ഓക്കെ സെവെൻറ്റി ആണ് ആ ഓക്കെ അപ്പം

യൂണിഫോം സെപ്പറേറ്റ് വാങ്ങണം നമ്മൾ ഇത് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണോ അതോ അവിടുന്ന് തന്നെ നിങ്ങൾ റെഡി ആക്കിതരുമോ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ അവിടുന്ന് തന്നെ റെഡി ആക്കണോ അതോ നിങ്ങൾ പുറത്തുനിന്ന് റെഡി ആക്കി തരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു റെഡി ആക്കി തരും ആ ഓക്കെ ഫുഡ് ആ ഓക്കെ ഫീസ് വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അതിപ്പം നമ്മളിപ്പോൾ എൽ കെ ജിയിൽ വരുമ്പോൾ വേറൊരു ഐ ഡി കാർഡ് ഇപ്പം എൽ കെ ജിയിൽ നിന്ന് യു കെ ജിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ വേറൊരു ഐ ഡി കാർഡ് അങ്ങനെ ആയിരിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ബസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അല്ലേ അപ്പോൾ ഈ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണോ ഒരാൾക്ക് ആയിരം രൂപ ആ ഓക്കെ ഓക്കെ ഇവിടെ എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് ഒമ്പത് മണി മുതൽ മൂന്നര വരെ ഇടയ്ക്ക് മൂന്നര വരെ ഉണ്ട് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഒരു നാലര ആ ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ എത്തുമായിരിക്കും അല്ലേ ആ ഓക്കെ ആ പിന്നെ വേറെ എന്തെങ്കിലും അവിടെ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വേണോ അതോ ഓ അങ്ങനെ ആണെങ്കിൽ ന ഓ ചേർക്കണം ആ ഓക്കെ എന്നാൽ